ഇവിടെ നമ്മുടെ പഠനങ്ങള്ക്കാവശ്യം ഇപ്പോൾ കുട്ടികള്ക്ക് പഠിക്കാനാണെങ്കില് ഒരുപാട് ട്യൂഷന് സെന്ററുകളും ഒരുപാട് കോച്ചിംഗ് സെന്ററുകളും ഒരുപാട് നല്ല ടീച്ചര്മാരും ഇന്ന് ഉണ്ട് സ്കൂളുകള് ആയാലും സെന്ററുകള് ആയാലും ഒരുപാട് നല്ല മികച്ച അറിവാണ് അവിടെനിന്ന് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികള്ക്ക് അവർ ഇപ്പം തന്നെ എല്ലാ ഇപ്പം ഫോൺ ഡിജിറ്റല് ലോക ഘട്ടം ആയതു കൊണ്ട് ഇപ്പം നമുക്ക് ഡിജിറ്റല് ആയിട്ട് സ്കൂളുകളില് ആണെങ്കിലും പ്രോജക്റ്റര് വെച്ചാണ് കുട്ടികള്ക്ക് ഫുള് എക്സ്പ്ലയിന് ചെയ്ത് അവരെ എന്താണ് നല്ല രീതിയില് പണ്ടൊക്കെ ആണെങ്കിൽ ബുക്ക് നോക്കി വായിച്ചു ജസ്റ്റ് വിടും ഇപ്പം ഇപ്പം വായിക്കുന്ന കൂട്ടത്തില് അവരുടെ മൈന്ഡില് ഒരു ഇതാക്കാന് വേണ്ടി അതിൻ്റെ ഓരോ വിഷ്വല്സ് കൂടി കാണിച്ചാണ് കുട്ടികളെ എല്ലാം ഇപ്പം മിക്ക സ്കൂളുകളും ഇപ്പം ഒരു പുതിയ രീതിയിലേക്ക് ഒരു ഫുള് ഒരു നല്ല രീതിയിൽ തന്നെ ഒരു പ്രൊജക്റ്ററും അത്യാവശ്യം കുട്ടികള്ക്ക് സൗകര്യമായിട്ട് ഇരുന്നു പഠിക്കാനും എല്ലാ രീതിയിലും ഉള്ള ഒരു സ്മാര്ട്ട് ക്ലാസ് എന്ന് പറയത്തക്ക രീതിയില് എല്ലാ സ്കൂളുകളും മാറി കഴിഞ്ഞിരിക്കുന്നു ആ അപ്പോൾ കുട്ടികള്ക്ക് ഓരോ ഓരോ സാ കാര്യങ്ങളും അവരുടെ രീതിയില് മനസ്സില് കിടക്കുവാ പ്രൊജക്റ്ററില് ഓരോ കാര്യങ്ങളും സീനുകളും ഇട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോള് ഇപ്പോൾ ഒരുപാട് ആശുപത്രികള് ഒരുപാട് മെഡിക്കല് സെന്ററുകളും അവിടെ എല്ലാം ഇപ്പം പാവപ്പെട്ടവര്ക്കും എല്ലാവർക്കും വേണ്ടി എല്ലാരെയും ഒരുപോലെ കാണുന്ന ഒരുപാട് ആശുപത്രികളുണ്ട് അവര്ക്ക് ഓരോ രീതിയില് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് സഹായിക്കാന് അവിടെ ആളുകളും